കഴിഞ്ഞ കാലങ്ങളിൽ തെരെഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാലും എന്നാൽ കൂടുതൽ സമയം ഈ ഓട്ടിങ്സിൻ്റെ സമയത്തിൽ ചില ചേയ്ഞ്ച്കൾ വരത്തേണ്ടതുണ്ട് അതായത് ആറ് മണിക്ക് തുടങ്ങി ചിലപ്പോൾ എന്നാൽ ഏഴ് മണിക്കാരംഭിച്ചിട്ട് ആറ് മണി വരേന്നൊള്ള സമയം ഒരു കുറച്ചാൽ വളരെ നല്ലതായിരിക്കും അതൊന്ന് എന്തുകൊണ്ടെന്നാൽ പലർക്കും ഈ ആറ് മണി കഴിഞ്ഞ് ഹൈ റേയ്ഞ്ച് മേഘലേലൊക്കെ തിരിച്ച് പോകാനുള്ളേയ്നും ഒക്കെ വളരെ ബുദ്ധിമുട്ടൊണ്ട് പ്രായായവർക്കൊക്കെ പ്രത്യേകിച്ചും ബുദ്ധിമുട്ടൊണ്ട് എല്ലായിടത്തും യാത്രാ സൗകര്യങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത മേഘല ഉണ്ട് പ്രത്യേകിച്ചും ആദിവാസി കുടികളിൽ കുടികളിൽ ഒക്കെ യാത്രാസൗകര്യങ്ങളും വളരെ കുറവാണ് ആ സ്ഥലങ്ങൾളേക്ക് ഈ കൃത്യം ആറ് മണി കഴിഞ്ഞാൽ പോകാന്ന് പറഞ്ഞാ ഇപ്പ ഇടുക്കിയെ സമ്പന്ധിച്ച് ഹൈ റേയ്ഞ്ച് മേഘലയേ സമ്പന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ഈ വന്യമൃഗങ്ങൾടെ ശല്ല്യങ്ങൾ ഒക്കെ വളരെ ഭീതി പരത്ത്ന്നതാണ് അതോണ്ട് ആ സമയത്തിനൊരു ഭേതഗതി വര്ത്താ ഓരോ ബൂത്തിലും ഓട്ടർമാര്ടെ എണ്ണം കൊറയ്ക്ക ആയിരവെന്നൊള്ളത് കൊറച്ച് ഒരെഴ്ന്നൂറോ എഴുന്നൂറ്റമ്പതോ ആക്ക്യാൽ അത് സമയങ്കൊറയ്ക്കാനും മറ്റുവക്കെ പറ്റും ആ സമയത്തിനുള്ളിൽ എല്ലാവർക്കും വന്ന് ഓട്ടെയ്യാനും ചെയ്യും പിന്നീട് മറ്റൊരൂ കാര്യമുള്ളത് പലർക്കുവിപ്പോൾ ഓട്ടിങ്ങിനോട് താല്പര്യവില്ല എന്ന് എന്തിനോട്ട് ചെയ്യ്ന്നു എന്താണ് നമുക്ക് നേട്ടം ഓട്ടർമാർക്കെന്താ നേട്ടം അതിന് പ്രത്യേകമായ കാരണം അതിൻ്റെ ജയിച്ച് വര്ന്ന ജനങ്ങൾ ഈ ഓട്ടർന്മാർ പരിഗണിക്കാതെ അവർ സ്വന്തമായി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്നാ നോക്ക്യേം അവർ സാമ്പത്തിക നേട്ടും അധികാര മോഹോവൊക്കെയാണ് കൂട്തലായിട്ട് ഓട്ടർമാർക്ക് പ്രയോജനപ്പെടുന്ന രീതീലേക്ക് ഓട്ടിങ് ശതമാനം ഓട്ട് നടത്തേണ്ടത്ണ്ട് മറ്റൊന്നൊള്ളത് ഈ പഴയ ഓട്ടിങ് രീതി വാലറ്റ് പേപ്പർ ഓട്ടിങ് രീതി നല്ലതാന്ന് അയിൻ്റാത്ത് ഒരു പോരായ്മ ഉള്ളത് കള്ള ഓട്ട്കൾ ഉണ്ട് അത് അയ്ന് നിയന്ത്രിച്ചാൽ മാത്രം മതി ഇപ്പൊഴ്ത്തെ രീതീല് വെച്ച് നോക്ക്മ്പോൾ നോക്ക്മ്പോൾ ഈ ഐഡിക്കാഡും ഒക്കെ ഒള്ളത് കൊണ്ട് കള്ള വോട്ട് വളരെയധികം കൊറയ്ക്കാമ്പറ്റും പണ്ട് അങ്ങനെ ഐഡിക്കാഡൊന്നുവില്ലാത്ത ഒര് കാലഘട്ടമായിര്ന്നു അന്നായിര്ന്നു കൂട്തൽ കള്ള വോട്ട്കൾ ചെയ്ത് മറ്റുള്ളവരോട്ട് ചെയ്ത് ഇട്ട് പോക്ന്നത് ആ രീതി ഇപ്പോൾ നടക്കൂല്ല എല്ലാവർക്കും ഐ ഡി ക്കാഡും ഫോട്ടോയുവൊക്കെ ഉള്ളത് കൊണ്ട് നടക്കൂല്ല എല്ലായാലും ഈവീഎംനേക്കാലും കൂട്തൽ അത് ബാലറ്റ് പേപ്പർലേക്ക് തന്നെ തിരിച്ച് പോക്ന്നതായിരിക്കും നല്ലതെന്ന് പറയാം അതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇട്ക്കീലേ സമ്പന്ധിച്ച് കൂട്തലും എന്നാ ഈ യാത്രാ ബുദ്ധിമുട്ട്കളും മറ്റും ഇത് വെച്ചാണ് കാലാവസ്ഥ വ്യതിയാനങ്ങളും അതക്കെ ഉണ്ടല്ലോ അതിൻ്റെ ചില സമയങ്ങൾളും മഴക്കാലങ്ങൾളൊയാണേ ഓട്ടിൻ്റെ സമയമെങ്കിൽ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും പഴയ രീതി വെച്ച് നോക്കുമ്പോൾ ഗാർഡിങ്ങിൽ വെച്ച് വളരെ സൗര്യമുണ്ട് പിന്നേ ചില ചുരുക്കം ചില മേഘലകളിൽ മാത്രമാണ് ഈ വോട്ടിങ് ചെയ്യ്ന്നവർക്ക് ഈ മറ്റ് പ്രാധമിക സൗകര്യങ്ങൾ ത്തൊള്ള സല സൗകര്യം ഇല്ലാത്തതൊള്ളു എന്നാലും കൂട്തലായിട്ടും ഇപ്പോൾ എല്ലാ സ്ഥലങ്ങൾത്തേന് മറ്റ് അപേക്ഷിച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ തൊണ്ണൂർ ശതമാനോം നല്ല രീതീൽ എന്ന ബൂത്ത്കളൊക്കെ അറേയ്ഞ്ച്മെൻ്റ് ചെയ്ത് മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇപ്പോഴത്തെ രീതിയിൽ വളരെ അധികം മാറ്റം വരുത്തേണ്ട വന്ന ഈ വി എംമ്മിനേപ്പറ്റി ഉള്ള അക്ഞത വിദ്യാഭ്യാസമേഖ് ലൊള്ള പോരായ്മ്മ കൊണ്ടായിരിക്കാം അത് കൊണ്ട് പഴയ വാലറ്റ് പേപ്പറിലേക്ക് തന്നെ മടങ്ങുന്നതാരിക്കും നല്ലത് ഒന്ന് പിന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പിലുള്ളത് ഈ സ്ഥാനാർത്ഥ്യമൻ്റെ അമിതമായ ഈ കടന്ന് കയറ്റം ഒരു നിശ്ചിത ശ്മാതമാനത്തിൽ കൂട്തൽ പേർസെൻ്റ് എന്നാൽ ഓട്ട് കിട്ടുന്നോർ മാത്രമേ അന്ന എലക്ഷന് മത്സരിപ്പിക്കാവൂ എന്നൊരു നിയമങ്കൊണ്ടെന്നാ വളരെ നല്ലത് ഇത്ര ശതമാനത്തിക്കൊറവ് വൊട്ടൊള്ള രാഷ്ട്രീയ പാർട്ടികളേയെക്കെ നിയന്ത്രിയ്ക്കേം അര് എന്ന എലക്ഷനും മാറ്റിനിർത്തിട്ട് ഒരൂ പത്ത് ശതമാനത്തിക്കൂടല് ഓട്ട് കിട്ട്ന്ന പാർ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമേ എന്ന എലക്ഷനിൽ നേരിടാവുള്ളു എന്ന് അത് കൊണ്ടൊരു നിയന്ത്രണം വെച്ചാൽ വളരെയധികം നന്നായിരിക്കും അതോടൊപ്പം മറ്റ് ആധുനീയമായ പരിഷ്കാരങ്ങളും ഒക്കെ നടത്തേണ്ടതൊണ്ട് നമ്മൾ ഇപ്പോഴീ അമിതമായ പ്രചരണവൊക്കെ നടത്തി യൂറോപ്പ്യൻ കണ്ട്രീടെപ്പോലെ പുതിയ ആധുനിക രീതീലൊള്ള പരസ്യം മാത്രം മതി ഇവർ അനാധിക്രമായ പരസ്യോം കൊണ്ട് കൂട്തൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്ക്യേം സ്ഥാനാർത്ഥിമാരും പാർട്ടിക്കാരും കൂട്തൽ പണം മുടക്കുന്ന കൊണ്ട് അത്കൊണ്ട് അതാത് തിരിച്ച് പിടിക്കാനൊള്ള കാര്യങ്ങൾ അവര് ഉണ്ടാക്കാൻ വേണ്ടീട്ട് നോക്കും അതുകൊണ്ട് ഈ പോസ്റ്ററ്കളും ബാനറുകളുവൊക്കെ നിയന്ത്രണം വേണം അയ്നാത്ത് ഒരു നിശ്ചിത പയ്നഞ്ച് ദെവസം വെച്ചാൽ അതിപ്പഴത്തേ രീതീല് വെച്ചാ പുതിയ സമ്പ്രദായത്തിലൊള്ള പരസ്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന ഒരു അഭിപ്രായം കൂടി ഞങ്ങക്കൊണ്ട് ഇത് പോലെ അമിതമായ ജനങ്ങളൊക്കെ ആവശ്യമില്ല ജനത്തിനറിയാനൊള്ള വോത്തിസ്സ് സോയിസ്സ്കളിപ്പോണ്ട് സവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പം ആര് അന്ന് പരസ്യപ്പെട്ത്ത്കാ ഈ ആനാവശ്യമായ പോസ്റ്ററ്കള് ചിഹ്നങ്ങള് അന്നാ അലങ്കാരങ്ങൾ ഒക്കെ ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനൊള്ളത് അതോടൊപ്പം നല്ല രീതീൽ സത്യസന്ധമായിട്ട് എലക്ഷന് മറ്റ് എതിര് കക്ഷികൾ എന്നെ എന്നാ അനുകൂലിക്ക്യേം അവരെക്കൂടി അഭിപ്രായവറിഞ്ഞ് അവർ എല്ലാം ചെന്നെത്ത്ന്നത് ആ ധാരണ മാറ്റി അവരേങ്കൂടി രീതീൽ മുന്നോട്ട് കൊണ്ടുവരണം അവരടെ അഭിപ്രായമ കൂടി അംഗീകരിക്കണം എന്ന് ആണ് എനിക്ക് പറയാൻ ഉള്ളത്